ഞാനിപ്പോൾ ആലുവയിലാണുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് എം ജി റോഡിലെത്തണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓട്ടോ ബുക്ക് ചെയ്യാനാണ് ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ആ ഈ ആ പെട്ടന്ന് തന്നെ എനിക്ക് പോണം അപ്പോൾ ആ ആ എം ജി റോഡിലേക്ക് എന്നെ ഒന്ന് എത്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് കരക്ട് സമയത്ത് എന്നെ ഒന്ന് എത്തിക്കാൻ കഴിയുമോ അപ്പോൾ ഡ്രൈവർ പെട്ടന്ന് ഏ തന്നെ ഒന്ന് വരുമോ